ടൂറിസം വന്നതോടുകൂടി നമുക്ക് പോസിറ്റീവായ കാര്യങ്ങളുമുണ്ട് നെഗറ്റീവായ കാര്യങ്ങളുമുണ്ട് പോസിറ്റീവായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എന്താ പിന്നെ ടൂറിസ്റ്റുകൾ വന്നതുകൊണ്ട് നല്ല കച്ച് കടകൾക്കൊക്കെയാണെങ്കിലും നല്ല കച്ചവടവും നല്ല കാര്യങ്ങളുമെല്ലാം ആകുന്നുണ്ട് പക്ഷേ എന്നാൽ അതിനെ സംബന്ധിച്ച് മറിച്ചാണെങ്കിൽ നമുക്ക് ബോട്ടുകളിൽപ്പോകുന്നവർക്കിപ്പം വെള്ളമെല്ലാം മലിനമാവുകയും അതും പിന്നെ ബോട്ടുകളിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ കുപ്പിവെള്ളം കുടിച്ച കുപ്പികളൊക്കെയാണെങ്കിലും പ്ലാസ്റ്റിക്ക് ഗ്ലാസ്സ് കിറ്റുകളും കവറുകളുമൊക്കെയാണെങ്കിലുമെല്ലാം ആറ്റിലേക്ക് വലിച്ചെറിയുക അങ്ങനെ നമ്മുടെ വെള്ളം മലിനമാവുകയും അങ്ങനെയൊക്കെയുള്ള ഇതും വരുന്നുണ്ട് ടൂറിസ്റ്റുകൾ വന്നതോടുകൂടിയാണ് നമ്മുടെ തോടുകളും ഇതുമെല്ലാം ഇങ്ങനെ അഴുക്കാകാൻ തുടങ്ങിയത് അതുവരെ നല്ല ഇതാ നമ്മൾ കുടിക്കുന്നതും ആഹാരം പാചകം ചെയ്യുന്നതെല്ലാം ആ വെള്ളത്തിലായിരുന്നു പിന്നെ ഇപ്പം അങ്ങനെ അത് ഉപയോഗിക്കാനങ്ങനെ പറ്റത്തില്ല ആപ്പടി മലിനവെള്ളമാണതിൽ വരുന്നത് പിന്നെ ടൂറിസ്റ്റുകൾക്ക് നല്ല ഒരു ഇതാണ് കുട്ടനാട് അവർക്കൊരുപാട് കാണാനുമെടുക്കാനുമൊ ക്കെ അതിനകത്തുണ്ട് അങ്ങനെ നല്ലൊരു ഇതാണ് ചെയ്യുന്നത് ഉള്ളത് അതുകൊണ്ട് പിന്നെ നല്ല ഒരു എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽത്തന്നെയും ടൂറിസ്റ്റുകളുടെ ടെ വരവിനോ പോക്കിനോ അങ്ങനെയൊന്നും കുറവുകളൊന്നുമില്ല ഓരോ ഇത് ചെല്ലുന്തോറും ടൂറിസ്റ്റുകൾ കൂടിക്കൂടിയാണ് വരുന്നത് പിന്നെ ഇത് എന്താണ് പിന്നെ നമ്മളിത് പറയുന്നതുപോലെത്തന്നെ എന്താ കരകൗശലവസ്തുക്കൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി കടകളിലൊക്കെ ഓരോരോ കരകൗശല വസ്തുക്കളൊക്കെ പുതിയ പുതിയ സാധനങ്ങളെല്ലാമുണ്ടാക്കി ഉണ്ടാക്കി വള്ളങ്ങളാണെങ്കിലും ചുണ്ടൻവള്ളം വെപ്പു വെള്ളം അങ്ങനെയൊക്കെയുള്ള കുറേ വള്ളങ്ങളൊക്കെ കൈക്കൊത്ത് പണിക്കാരിങ്ങനെ ഉണ്ടാക്കിയെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ ഓരോ ഓരോ സാധനങ്ങൾ കരകൗശലവസ്തുക്കൾ നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കി കടളിലൊക്കെ വെച്ചിട്ട് അതൊക്കെ ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര ഇതാണ് അതൊക്കെ അവർ ചോദിക്കുന്ന അവർ പറയുന്ന കാശുകൊടുത്തവരതൊക്കെ വാങ്ങിക്കൊണ്ട് പോവാറുണ്ട് അങ്ങനെ നല്ല ഒരു ഇതാണ് അതിൽ നിന്നും നല്ല വരുമാനമുണ്ടാക്കാൻ പറ്റുന്നുണ്ട് ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ആലപ്പുഴയിൽ ഉള്ളത് ആലപ്പുഴയിൽ ഇപ്പം ടൂറിസ്റ്റുകൾ കൂടിക്കൂടിയാണ് വരുന്നത് ഓരോ ഇതും ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട് ഒരുപാട് ഇപ്പം അവർക്ക് വേണ്ടി കുറേ കൂടുതൽ സാ കരകൗശല വസ്തുക്കളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഹോട്ടലുകൾ എന്തെല്ലാം അവർ അവർക്ക് വേണ്ടീട്ട് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിത്തന്നെ ഓരോ ഇതുകളെല്ലാം മണി മണികളും മണിമാളിക എല്ലാം പണിയുന്നുമുണ്ട് അവർ അവർക്ക് ഗെസ്റ്റ്ഹൗസുകളൊക്കെ ഇത് ചെയ്യും പിന്നെ ഉണ്ടാക്കിയിടുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടീട്ട് കാശിന് ആയതുകൊണ്ട് അവരെക്കൊണ്ട് നല്ലവശവും ദോഷവശവുമെല്ലാമുണ്ട് എന്നാലെങ്കിൽക്കൂടിയും അത് മുന്നോ ഓരോ വർഷം ചൊല്ലുന്തോറുമത് മുന്നോട്ട് പോയിക്കൊണ്ടാണിരിക്കുന്നത് നല്ല രീതിയിൽത്തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് അത് പോകുന്നത് പിന്നെ ആലപ്പുഴയിൽ ടൂറിസ്റ്റുകളേ ഉളളൂ അവരാണ് കൂടുതലും ഇപ്പം അല്ലാതെയുള്ള മലയാളി മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളേക്കാളും കൂടുതലിപ്പം ടൂറിസ്റ്റുകളാണുള്ളത് ബോട്ടുകളിലും ചെറിയ ചെറിയ തോണികളിലും എല്ലാം പിന്നെ ശിക്കാരി വള്ളങ്ങളൊ ക്കെ ആണെങ്കിലുമെല്ലാം ഇഷ്ടം പോലെ ആൾക്കാരെയിറക്കുന്നുമുണ്ട് അവർക്ക് വേണ്ടിയിട്ടിങ്ങനെ ഇറക്കി ഇറക്കി ഇടുന്നുമുണ്ട് അത് അതൊക്കെയാണ് അവർ അതിലൊക്കെയാണവർ യാത്രകൾ ചെയ്യുന്നത് അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളുമെല്ലാം അതിനകത്തുണ്ട് ഒരു ഹൗസ് ബോട്ടിൽത്തന്നെ ആണെങ്കിലും ഇത് ഒരു ദിവസത്തേക്കിത്ര രൂപ എന്ന് പറഞ്ഞാണവർ ഹൗസ് ബോട്ടിലിൽ കയറുന്നത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കണ്ടുതീർത്തുകഴിഞ്ഞപ്പം വേറെ നാളെ വേറെ സ്ഥലങ്ങളായിരിക്കും കാണാൻ പോവുന്നത് അങ്ങനെ ഓരോ ഓരോ ദിക്ക് ദിശയിലേക്കും ദിക്കുകളിലേക്കുമൊക്കെ മാറി എല്ലാം പോകുന്നുണ്ട് അങ്ങനെ എല്ലാം അതിന് വേണ്ടീട്ടെല്ലാം നടത്തുന്നുമുണ്ട് അപ്പം നമ്മൾ വെച്ചാൽ കൂടുതലും ഈ വള്ളങ്ങളിലും ബോട്ടുകളിലുമൊക്കെയായിട്ടാണവർ വരുന്നത് ഹൗസ് ബോട്ടുകളിൽ ഭക്ഷണമുൾപ്പെടെയാണവർ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഏ സി ഉൾപ്പടെയാണ് ആ ഒരു ഹൗസ് ബോട്ടിലിലുള്ളത് ആ ഭക്ഷണങ്ങളാണെങ്കിലും സമയാസമയത്ത് ഭക്ഷണങ്ങളും കൊടുക്കാറുണ്ട് എല്ലാം നല്ല ഇതിലാണ് അപ്പം അവർക്ക് കാഴ്ച്ചകൾ കണ്ട് രസിച്ചിങ്ങനെ നടക്കുകയും ചെയ്യാം എല്ലാം കാണുകയും ചെയ്യാം അതാണ് ഇതുകൊണ്ടുദ്ദേശിക്കുന്നത് അങ്ങനെ നല്ല ഹൗസ് ബോട്ടുകൾക്കൊക്കെ നല്ല ബിസിനസാണുള്ളത് ഇതിന് നല്ല ഇതുമുണ്ട് ഓട്ടങ്ങളൊക്കെ ആണെങ്കിലുമുണ്ട് ഒര്പാടോട്ടങ്ങളുണ്ട് ഹൗസ് ബോട്ടുകൾക്ക് പള്ളാത്തുരുത്തിയിലൊക്കെ ഒരുപാട് ഹൗസ്ബോട്ടുകളൊക്കെയുണ്ട് ഹൗസ്ബോട്ടുകൾ നമുക്ക് പാലത്തിൽ നിൽക്കുമ്പം കാണാം നിരനിരയായിട്ട് ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്നത് കാണാം അതിലെല്ലാം ഇങ്ങനെ ആൾക്കാരെയും കയറ്റി ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നിങ്ങനെയങ്ങ് പോകാറുണ്ട് അങ്ങനെയാണത് പോകുന്നത് പിന്നെ അത് അങ്ങനെയും കുറേ നല്ല നല്ല ഇതാണ് പിന്നെ ജലം മലിനമാകുന്നുവെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ വേയ്സ്റ്റുകളൊന്നും വരാൻ അധികം തോട്ടിലോട്ടോ ആറ്റിലോട്ടോ ഒന്നും വലിച്ചെറിയാതെ അതും ഹൗസ് ബോട്ടിലൊക്കെത്തന്നെ എന്തെങ്കിലും വേയ്സ്റ്റിടാനുള്ള ഈ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതാ അന്നേരം നമ്മുടെ വെള്ളമൊന്നും ചീത്ത ആകാതെ കിടന്നേനെ അത്രയൊക്കെയേ ഇതിൽ പറയാനുള്ളു വേറെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് ഇല്ല എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെത്തന്നെ ഓരോ വർഷം ചൊല്ലുന്തോറും പുതിയ പുതിയ പുതു എല്ലാ പുതുമയായിട്ടാണ് കാണുന്നത് എല്ലാം പുതുക്കി പുതുക്കിയാണ് നിൽക്കുന്നത് അതൊക്കെ അത്രയൊക്കെയാണ് ആണ് ഇതിന് ഇതിലുൾ ഉള്ളത്